ഹലോ ഇത് ആരതിയുടെ അമ്മയാണോ ഞാന് സ്കൂളിൽ നിന്ന് ടീച്ചര് ആയിരുന്നേ അവളുടെ ക്ലാസ്സ് ടീച്ചർ ആണ് കുട്ടിക്ക് രാവിലെ തൊട്ട് ഒരേ ഒന്ന് തല കറങ്ങി വീണായിരുന്നു അസംബ്ലീന്റെ ടൈമിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ കുറച്ച് നേരം കിടന്നോട്ടെ കിടന്നിട്ട് എഴുന്നേറ്റ് പോയാൽ മതി ഫസ്റ്റ് പീരിയഡ് അങ്ങനെ സ്റ്റാഫ് റൂമിലായിരുന്നു ഇടക്ക് ഇങ്ങനെ വീഴുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു അതുകഴിഞ്ഞിട്ട് കുട്ടി എന്താണെന്നറിയില്ല ആരതി എന്താണ് രാവിലെ കഴിച്ചത് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു രണ്ടുപ്രാവശ്യം അവൾ വൊമിറ്റ് ചെയ്തു അതേയോ എന്താണ് പറ്റിയതെന്ന് അറിയില്ലല്ലോ കുട്ടി ഭയങ്കര ക്ഷീണാണ് നിങ്ങൾ സ്കൂളില് വരാന് പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ എന്തായാലും ഹോസ്പിറ്റലില് കൊണ്ടുപോകേണ്ടി വരും കുട്ടിക്ക് ഭയങ്കര വയ്യ അത് ശരിയാണ് ഇങ്ങനെ വരാറുണ്ടോ ഇടക്ക് ഇങ്ങനെ തലകറങ്ങി വീണ് വൊമിറ്റ് ചെയ്യുന്നത് പോലെ അങ്ങനെയൊക്കെ ടെന്ഡന്സി ഉള്ള കുട്ടിയാണോ അവൾ കഞ്ഞിവെള്ളം ഇവിടെനിന്ന് ഇപ്പം പിന്നെ കഞ്ഞിപ്പുരയിൽനിന്ന് എടുത്തു കൊടുത്തായിരുന്നു കഞ്ഞിവെള്ളം കുറച്ച് കുടിപ്പിച്ചു നോക്കിയായിരുന്നു കാരണം ഛര്ദ്ദിച്ചു ആൾ ഭയങ്കരായിട്ട് ക്ഷീണം ആയപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കുടിപ്പിച്ചു പക്ഷേ കുടിപ്പിച്ച് കഞ്ഞി വെള്ളം വരെ ഛര്ദ്ദിക്കുകയാണ് കുട്ടി ശരിക്കും വയ്യ കാരണം അവൾ അത്യാവശ്യം എനര്ജറ്റിക്ക് ആയിട്ട് എല്ലാം ചെയ്യുന്ന കുട്ടിയാണേ അപ്പം പെട്ടെന്ന് ഇങ്ങനെ അവശയായി പോവുമ്പോൾ തീരെ വയ്യ എന്ന് തോന്നുന്നു പനി പനി ഉണ്ടായിരുന്നോ ആ നിങ്ങൾ സ്കൂളിൽ വാ ഞാനെന്തായാലും തലവേദനേന്റെയും ഒരു വൊമിറ്റിങ്ങിന്റെയും ഒരു ചെറിയ ഗുളിക കൊടുത്തിട്ടുണ്ട് അവൾക്ക് ഭയങ്കര അവശതയാണ് അപ്പം നിങ്ങൾ വന്നിട്ട് ഒരു കാര്യം ചെയ്യൂ കൊച്ചിനെ കൊണ്ട് പോയിക്കോളൂ സ്കൂളിൽ നിന്നേ ആയിക്കോട്ടെ നിങ്ങൾ വന്ന് കുട്ടീനെ വീട്ടില് കൊണ്ടു പോയിക്കോളൂ കേട്ടോ ആ ഇവിടെ സ്റ്റാഫ് റൂമിൽ പ്രിന്സിപ്പളിനോട് പറഞ്ഞാൽ മതി ബേഗ് ഒക്കെ ഇവിടെ സ്റ്റാഫ് റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട് എന്നെ കണ്ടില്ലെങ്കിൽ പ്രിന്സിപ്പളിനോട് പറഞ്ഞിട്ട് കൂട്ടിക്കോളൂ കേട്ടോ ആയിക്കോട്ടെ